എനിക്കുള്ള ചുറ്റുപാടിൽ വൈദ്യുതിക്ക് വലിയ മുടക്കം വരുന്നില്ല ഇരുപത്തി നാല് മണിക്കൂറിൽ ഇരുപത്തി രണ്ട് മണിക്കൂറും വൈദ്യുതി ലഭ്യമാവുന്നുണ്ട് എന്നാൽ ചില സാഹചര്യങ്ങളിൽ വൈദുതി മുടക്കം ഉണ്ടാവുന്നു അത് കാലാവസ്ഥയിപ്പോൾ മഴക്കാലമാവാണെങ്കിൽ ഇടിയുടെ ഒക്കെ കാര്യം കാരണം അല്ലെങ്കിൽ ലൈൻ ടച്ച് ആപ്പ് അല്ലെങ്കിൽ ലൈൻന്നെന്തെങ്കിലും പ്രോബ്ലം അങ്ങനൊക്കെ വരുമ്പോൾ കറണ്ടിൽ കട്ടൊണ്ടാവുന്നു അത് കറണ്ട് പോകുമ്പോൾ നമുക്ക് ആ ഇരുപത്തി നാല് മണിക്കൂറിൽ ഇരുപത്തി രണ്ട് മണിക്കൂറും നമുക്ക് കറണ്ടൊണ്ടായി എന്നാൽ ഒരു അരമണിക്കൂർ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു മണിക്കൂർ കറൻറ്റ് പോകുമ്പോൾ നമുക്ക് ധാരാളം ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ കറൻറ്റമ്മ്ക്ക് ഇരുപത്തി നാല് മണിക്കൂറിൽ ഇരുപത്തി രണ്ട് മണിക്കൂറുണ്ട് ഇരുപത്തി മൂന്ന് മണിക്കൂറൊണ്ടെങ്കിലും ഒരു മണിക്കൂറ് ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ട് ചിലപ്പോൾ ആ സമയത്ത് വെട്ടമില്ലാ രാത്രിയിലാണെങ്കിൽ നമുക്കറിയാം വെട്ടമില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് ചിലപ്പോൾ ചാർജ് കാണത്തില്ല അത് വരേം കറൻറ്റൊണ്ടെങ്കിൽ പോലും നമ്മളൽപ്പം മൊബൈലോയെല്ലാം ചാർജ് ചെയ്തിടത്തില്ല ചിലപ്പോൾ ചാർജ് കുറയുമായിരിക്കാം രാത്രി കാലങ്ങളിലാണെങ്കിൽ നമുക്കൊത്തിരി ബുദ്ധിമുട്ടുണ്ട് പ്രകാശം വേണ്ടതൊണ്ടാകും പകലാണേ നമുക്ക് ബുദ്ധിമുട്ടില്ല വൈദ്യുതി മൊടക്കുണ്ടെങ്കിൽ എന്നാൽ രാത്രി കാലങ്ങളിൽ കറണ്ട് പോകുമ്പോൾ വൈദ്യുതി മുടങ്ങുമ്പോൾ നമുക്കത് അത്ജീവിതത്തെ വളരെ ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ട് പ്രത്യേകിച്ച് കുട്ടികളുള്ള വീടുകളാണെങ്കിൽ അവർക്ക് പഠനത്തിന് ബുദ്ധിമുട്ട് വരും

ഇപ്പോൾ ജീവിതത്തിൽ ഐ നമുക്ക് കാലാവസ്ഥ പ്രവചിക്കാൻ കഴിയില്ല ചിലപ്പോൾ ഭയങ്കര ഇടിയും അല്ലെങ്കിൽ പെരുമഴയാണെങ്കിൽ വൈദ്യുതി തടസ്സം നടത്തിയേ പറ്റത്തൊള്ളു തടസ്സം വന്നേ പറ്റത്തൊള്ളു അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത് ബാധിക്കുമോന്ന് ചോദിച്ചാൽ കറണ്ട് ബാധിക്കും എന്നിരുന്നാലും പണ്ട് കാലങ്ങളിൽ നമ്മുടെ പഴയ തലമുറ കറണ്ട് ബാ വൈദ്യുതിയില്ലാതെ മണ്ണെണ്ണ വിളക്ക് വെട്ടത്ത് അല്ലെങ്കിൽ മെഴ്കുതിരിയുടെ ആയൊരു രീതീലൊക്കെയാണ് വളർന്ന് അല്ലെങ്കിൽ ജീവിച്ച് വന്നത് ഇന്നത്തെ തലമുറ അതൊന്നും അറിയില്ലവർ വൈദ്യുതി ഒരു പത്ത് മിനിറ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ വളരെ അധികം ബുദ്ധിമുട്ടിലൂടെ കടന്ന് പോകുന്നതായിട്ട് നമുക്ക് കാണാനേക്കൊണ്ട് കഴിയും നമ്മുടെ പഴയ തലമുറ വിളക്ക് വെട്ടത്തായിരുന്നു അല്ലെങ്കിൽ മണ്ണെണ്ണ വെളിച്ചം അല്ലെങ്കിൽ മെഴുകുതിരിയുടെ വെട്ടത്തായിരുന്നു അവർ പല കാര്യങ്ങളും ചെയ്തുകൊണ്ട് ഇരുന്നത് അപ്പോൾ നമുക്ക് ഞാൻ ആ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോയതാണ് എന്നിരുന്നാൽ പോലും ഇന്നത്തെ തലമുറ അതൊന്നും അനുഭവിക്കാനേക്കൊണ്ട് അല്ലെങ്കിൽ വിളക്കില്ലാതെ വെട്ടമില്ലാതേം ജീവിക്കാനേക്കൊണ്ടവർ ബുദ്ധിമുട്ടുന്നതായിട്ട് നമുക്ക് കാണാനെക്കൊണ്ട് കഴിയും അപ്പോൾ നമുക്കറിയാം കറണ്ട് ഇല്ലെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തെ വളരെയധികം ബാധിക്കുന്നതായിട്ട് നമുക്ക് കാണാനേക്കൊണ്ട് കഴിയും എല്ലാവരേം ബാധിക്കും ഇന്നത്തെ കാലഘട്ടമെന്ന് പറയുന്നത് അങ്ങനെയുള്ളൊരു കാലഘട്ടമാണ് നമ്മൾ പുരോഗതി കൂടുംന്തോറും അല്ലെങ്കിൽ വികസനം കൂടുംന്തോറും നമ്മുടെ ജീവിതത്തിലെ അല്ലെങ്കിൽ സാഹചര്യങ്ങളെ നമ്മൾ അതിനെ എങ്ങനെ മറികടക്കണമെന്ന് അറിയാൻ വയ്യാത്തൊരു തലമുറയാണ് ഇന്നത്തെ കാലത്തുള്ളത് എന്നാൽ പഴയ തലമുറക്ക് അതൊരു പ്രശ്നവുമല്ല അവർ എങ്ങനെയെങ്കിലും വളരെ ബുദ്ധിമുട്ടിലൂടെ കടന്ന്പോയ ഒരു പഴയ തലമുറയായിരുന്നു പണ്ടുണ്ടായിരുന്നത് ഇന്നത്തെ കാലത്ത് നമുക്ക് അറിയാം നമ്മുടെ വീടുകളിൽ കറണ്ടില്ലെങ്കിൽ ചൂടുണ്ടായിരിക്കും എന്നാൽ പഴയ തലമുറയിൽ ഉള്ള ആൾക്കാർക്ക് ആ ചൂടൊക്കെ അവർ വിശറിയെടുത്ത് വീശിയും ജനൽ തുറന്ന് അല്ലെങ്കിൽ നല്ല കാറ്റ് കിട്ടുവാണെങ്കിൽ അവർക്ക് ആ ചൂടിന്റെ ആവശ്യമൊന്നും തന്നെ ഇല്ല ഇപ്പോൾ കാലാവസ്ഥ നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല ചൂടാണേലും മഴയാണെങ്കിലും തണുപ്പാണെങ്കിലും എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നൊരു അവസ്ഥയാണ് അപ്പോൾ ജീവതത്തെ നമ്മളത് കാലാവസ്ഥകൾ നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നുണ്ട് ഒപ്പം തന്നെ വൈദ്യുതി മുടക്കം അത്യാവശ്യം ഇതൊക്കെ നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് കടമെടുക്കെയാണ് നമ്മൾ വൈദ്യുതി മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും ഇരട്ടി കാശ് മുടക്കി നമ്മൾ വൈദ്യുതി കടമെടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ഓരോ വീടുകളിലും വൈദ്യുതിയുടെ ഉപയോഗം കൂടുതലായിട്ട് നമുക്ക് കാണാൻ കഴിയും പണ്ട് കാലങ്ങളിൽ രണ്ട് മുറി ഒരു അടുക്കളയായിട്ടുണ്ടായിരുന്നു എന്നാൽ ഇന്നങ്ങനെ അല്ല നമ്മുടെ ചുറ്റും വീടുകൾ വർധിച്ച് വരുന്നത് കാലമായിട്ട് വൈദ്യുതിയുടെ വൈദ്യുതി കൂടുതൽ കൂടുതലവർ എടുക്കേണ്ടി വരുന്നു അപ്പോൾ വൈദ്യുതി ഒത്തിരിയാകുമ്പോഴൊക്കെ അങ്ങ് കിട്ടാനില്ല നമ്മൾ മറ്റുളള സംസ്ഥാനത്ത് നിന്നും കടമെടുക്കുകയാണ് അപ്പോൾ വൈദ്യുതി നമ്മുടെ ജീവിതത്തെ ഒത്തിരി ബാധിക്കുന്നുണ്ട്